ആരോഗ്യ സംരക്ഷണംന്നു പറയുമബോൾ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ വേണം ഡോക്ടർമാര് വേണം പിന്നെ ഞങ്ങൾടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടർമാര് പിന്നെ ഹോസ്പിറ്റല്ന്നു പറയുമ്പോ മെഡിക്കൽ കോളേജ് മാനന്തവാടി മെഡിക്കൽ കോളജ്ന്നു പറയും അവിടെന്നു പറഞ്ഞാല് നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ ഗതാഗതം വണ്ടി അങ്ങനെ അടുത്തുള്ള വണ്ടികളെല്ലാം ഉണ്ട് നമുക്ക് അടുത്ത് പിന്നെ വിദ്യാഭാസം സ്കൂള്ന്നു പറഞ്ഞാല് സ്കൂളും അടുത്ത് തന്നെയുണ്ട് പിന്നെ ആവശ്യങ്ങള്ന്നു പറയുമ്പോൾ പിന്നെ നമ്മളെ അടുത്തന്നെ ഗ്രാമവും നമുക്ക് കടകളും അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഞങ്ങളുടെ അയല്പക്കത്തു തന്നെയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും പ്രതി വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല